ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടങ്കിൽ കാലാവസ്ഥയിൽ വരുന്ന മാറ്റമാണ് നമുക്ക് ഒരു സ്ഥിരമായിട്ട് കേരളത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പറയാം നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു കാലാവസ്ഥ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല വേനൽക്കാലമാണെങ്കിലും മഴയാണ് മഴക്കാലത്ത് മഴ ചിലപ്പോൾ കുറവാണ് ചിലപ്പോൾ പ്രകൃതി ദുരന്തങ്ങള് അതില് ഏറ്റവും കൂടുതല് ഭൂപ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ നമുക്ക് ഈ അന്തരീക്ഷം പരിസ്ഥിതിയേയും ഈ അന്തരീക്ഷത്തിനേയും നമുക്കെല്ലാത്തിനും മാറ്റം വരാനുള്ള ഒരു മുഖ്യ കാരണം വേനൽമഴ ഉണ്ടാ ഉണ്ടാവേണ്ട സമയത്ത് അതിശക്തമായി വേനൽമഴയും മഴയുള്ള സമയത്ത് മഴയില്ലാത്തൊരവസ്ഥയും എന്തൊക്കെക്കെയോ മാറ്റങ്ങൾ നമ്മുടെ ഭൂമിയിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കേറ്റവും നമ്മുടെ ചുറ്റുമുള്ള ഭൂപ്രകൃതി നോക്കിയാൽ മതി നദികള് കാടുകള് മലകള് കുന്നുകള് കടൽ കൃഷിയിടങ്ങള് മണ്ണ് ഇതിലൊക്കെ നമ്മള് അതൊക്കെ നമ്മുടെ കാലാവസ്ഥേനെ വലിയ രീതിയിലൊരു പങ്ക് വഹിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരിത് നമ്മടെ അമിതമായ പ്ലാസ്റ്റിക്ക് ഉപയോഗം കൊണ്ട് കുന്നുകളും കൃഷിയിടങ്ങളും മണ്ണൊക്കെ നശിച്ച് പോകുന്നുണ്ട് അതേപോലെ അമിത രാസപ്രയോഗം കാരണം അപ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞ് നമ്മള് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും പിന്നെ കുറേ ചെടി നാട്ടൊരു നട്ട് പിടിപ്പിക്കുക ഒരു പത്ത് മക്കൾക്ക് സമമാണ് ഒരു മരം എന്ന് പണ്ട് പഴഞ്ചൊല്ല് ഉണ്ടായിരുന്നു അപ്പോൾ മരങ്ങളൊക്കെ വെട്ടി മുറിച്ച് വല്യ ഫ്ലാറ്റും വീടുമൊക്കെ വയ്ക്കുകയല്ലെ മരങ്ങളൊക്കെ വച്ച് പിടിച്ച് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ നോക്കാം അപ്പോൾ നമ്മള് ഈ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും